ഫോട്ടോ എടുക്കാനായി ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളും അതുപോലെ ചില ടൂറിസ്റ്റ് പ്ലേസുകൾ ഒക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അതുപോലെ ഇൻറ്റർനാഷണൽ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട് ഫോട്ടോ ഇങ്ങനെ ട്രിപ്പുകൾ പോകുമ്പോൾ ഫോട്ടോയെടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് പിന്നെ അങ്ങനെ ഒരുപാട് പോയിട്ടുണ്ട് ആ പോയെടുത്തൊക്കെ നിന്ന് ഫോട്ടോകൾ ഒരുപാട് എടുത്തിട്ടും ഉണ്ട് ചിലത് ഒക്കെ ശരിയായിട്ടുണ്ട് ചിലത് ഒക്കെ മോശമായിട്ടും ഉണ്ട് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ എല്ലാം ഞാൻ പോയിട്ടുണ്ട് ബാംഗ്ലൂർ മൈസൂർ ഇവിടെ ഒക്കെയുള്ള ചില ചില മോണമെൻസിൻറ്റെം കെട്ട് കെട്ടിടങ്ങൾ നല്ല നല്ല ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പോയി ഫോട്ടോ സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ട് കൂട്ടുകാരുടെ കൂടെ നിന്നും ടൂറൊക്കെ പോകുമ്പം എടുത്തിട്ടുണ്ട് പിന്നെ കൂർക്ക് കൊടക് കർണാടക അങ്ങനുള്ള സ്ഥലങ്ങൾ പിന്നെ തമിഴ്നാട് കന്യാകുമാരി ഇങ്ങനുള്ള ഭാഗങ്ങളിൽ ഒക്കെ പോയി എടുത്തിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഒരുപാട് പ്ലേസസിൽ പോയിട്ടുണ്ട് വയനാട് തിരുവനന്തപുരം ഇവിടെ ഒക്കെയുള്ള നല്ല നല്ല ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പോയി ഫോട്ടോ എടുത്തിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണ് പിന്നെ നല്ല നല്ല ബീച്ചുകൾ ഒക്കെ കണ്ണൂർ കോഴിക്കോട് എറണാകുളം ഇവിടെ ഒക്കെയുള്ള ബീച്ചുകളിൽ ഒക്കെ പോയി നല്ല ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻറ്റർനാഷണൽ പറയാണെങ്കിൽ ബാലി എന്ന് പറഞ്ഞ ഇൻറ്റോനേശ്യേൽ ഒരു സ്ഥലം അവിടെ നല്ല ഫോട്ടോ ഒക്കെ നല്ല പ്ലേസാണ് അവിടേം പോയി എടുത്തിട്ടുണ്ട് പിന്നെ ഇന്ത്യയിലെ പ്ലേസുകൾ നോക്കുവാണേൽ എനിക്ക് ഇനി പോകാൻ ആഗ്രഹമുള്ള ഒരു പ്ലേസാണ് ഡെല്ലി ഡെല്ലിയെ തന്നെ താജ്മഹലിൻ്റെ മുന്നിലും റെഡ് ഫോർട്ടിൻ്റെ മുന്നിലും ലോട്ടസ് ടെംപിൾ ജുമാമസ്ജിദ് ഇങ്ങനുള്ള ഇപ്പം തേപ്പൂർ സിക്രി ഇങ്ങനുള്ള ഒരുപാട് പ്ലേസസ് ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ട് അപ്പം ആ ബിൽഡിങ്സിൻറ്റേക്കെ മുന്നിൽ നിന്നോണ്ട് ഫോട്ടോ എടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അങ്ങനെ ഡെൽല്ലി എൻ്റെ ഒരു സ്വപ്ന സ്ഥലം തന്നെയാണ് പിന്നെ ഉള്ളതാണ് കാശ്മീർ കാശ്മീരിൽ ആ മഞ്ഞിൻ്റെ ആകത്തൂടെ ഒക്കെ മഞ്ഞുള്ള സ്ഥലങ്ങളിൽ ഒക്കെ പോയി ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ട് പിന്നെയുള്ള സ്ഥലമാണ് പഞ്ചാബ് പഞ്ചാബില് നമുക്ക് അറിയാം പഞ്ചാബിൽ ഒരുപാട് പൂക്കളൊക്കെ കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ് പൂക്കളും അതുപോലെ പച്ചക്കറികളും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലം ആ പൂക്കളുടേക്കെ എടയ്ക്കൂടേക്കെ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ട് പിന്നെ എനിക്ക് സന്ദർശിക്കാൻ ഇഷ്ടം ഉള്ളൊരു സ്ഥലമാണ് രാജസ്ഥാൻ രാജസ്ഥാൻ്റെ അറിയാം നമുക്ക് അറിയാം മരുഭൂമിയാണ് അപ്പം മരുഭൂമീടെ ആ ഒരു മനോഹാരിത അറിയണം എന്നുണ്ട് അതുപോലെ ഒട്ടകം ഒക്കെ ഉള്ള മരുഭൂമി ആയോണ്ടോ അപ്പം അവിടുത്തെ ഒട്ടകത്തിൻറ്റേക്കെ പുറത്ത് ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഒക്കെ താൽപര്യമാണ് പിന്നെ ഉള്ളൊരു പ്ലേസ്ന്ന് പറയുന്നത് ഗോവ ഗോവേൽ ഒരു ടൂറിസ്റ്റ് പ്ലേസന്നെയാണ് അപ്പം ഗോവേൽ ഒരുപാട് കാര്യങ്ങൾ കാണാനും ബീച്ചും അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഗോവയിൽ നിന്നു കൊണ്ട് ഫോട്ടോ എടുക്കാനും അതിയായ താല്പര്യം ഗോവയിൽ ഒരുപാട് ബിൽഡിങ്സ് പഴയ പള്ളികളും പ്രാർഥനാലയങ്ങളും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഗോവേലൊണ്ട് ടൂറിസ്റ്റ് പ്ലേസായോണ്ട് പിന്നെ ബീച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് ഗേമുകളുണ്ട് അപ്പം ഇതെല്ലാടെ കൂട്ടീട്ട് അവിടേം സന്ദർശിക്കാൻ വളരെ താൽപര്യം ഉള്ളൊരു സ്ഥലമാണ് പിന്നെ ഉള്ള പ്ലേസാണ് ആസാം മേഘാലയ ആ ഒരു ഭാഗം അവിടെ നല്ല തേയിലത്തോട്ടങ്ങളും കൃഷികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അവിടം ഒക്കെ നിന്നും ഫോട്ടോ എടുക്കാൻ എനിക്ക് വളരെ താൽപര്യമാണ് പിന്നെ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ കുറെ പ്ലേസസ് ഇനീം കാണാനുണ്ട് പിന്നെ ഊട്ടി കൊടൈക്കനാൽ ഇങ്ങനുള്ള സ്ഥലങ്ങൾ പോയിട്ടുണ്ട് പോയി ഫോട്ടോകൾ കൊടൈക്കനാലൊക്കെ പോയി ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കർണാടക സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ബാംഗ്ലൂർ ഇനിയും പോകാൻ താൽപര്യമാണ് അവിടെ പോയി അവിടെ ഇനീം കാണാത്ത സ്ഥലങ്ങൾ കാണാത്ത കാഴ്ചകൾ ഇനിയും ഉണ്ട് പിന്നെ പോണ്ടിച്ചേരി ചെന്നൈ ഇവിടെ ഹബി ഹബി ഇഷ്ടപ്പെട്ടൊരു പ്ലേസാണ് ഹമ്പീലൊരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ പിന്നെ ഗുജറാത്ത് ഇവിടെയൊക്കെ ഇനിം കാണാത്ത കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട് അങ്ങനുള്ള പ്ലേസുകളിലൊക്കെ പോയി ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കണമെന്നുണ്ട് ഫോട്ടോ എടുക്കാൻ താൽപര്യമാണ് പിന്നെ സ്ഥലങ്ങൾ അധികം നോക്കിയാൽ കേരളത്തിലാണ് കേരളത്തിൽ ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണേണ്ടത് ആയിട്ടുണ്ട് അങ്ങനാണ് കേരളത്തിലും നല്ല സ്ഥലങ്ങൾ സന്ദർശിക്കണം എന്നുണ്ട്